ഇന്നഭിമുഖീരിക്കുന്ന ഏറ്റവും വലിയ പ്രളശനങ്ങള് ഭൂകമ്പം മഹാമാരി മെ മണ്ണൊലിപ്പ് പരസ്ഥിതിയിൽ ഉണ്ട് ഉണ്ടായ മാറ്റങ്ങളാണ് മഴക്കാലത്ത് ഇവിടെ ഉരുള് പൊട്ടലുണ്ടാവുന്നു പിന്നെ മരം വെട്ടി മുറിക്കുന്നത് വഴിയായിട്ട് മണ്ണെല്ലാം ഒലിച്ച് ചോർന്ന് പോകുന്നു മഴക്കാലത്ത് കഠിനമാ വളരെ മണ്ണൊലിച്ച് പോകാറുണ്ട് പരിസ്ഥിതി എല്ലാം മോശമായിക്കൊണ്ടിരിക്കുന്നു കൃഷിയിടങ്ങളെല്ലാം മണ്ണുകളെല്ലാം ഒലിച്ച് പോയികൃഷിയിടങ്ങളെല്ലാം വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു മാലിന്യങ്ങളെല്ലാം അടിഞ്ഞ് കൂടുന്നു കാലാവസ്ഥയിൽ മാറ്റം വരുന്നു അതുവഴിയായിട്ട് ഞങ്ങള കൃഷികളെല്ലാം വളരെ കേടുപാടുകളെല്ലാം വന്ന്കൊണ്ടിരിക്കുന്നു രോഹങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു മാലിന്യങ്ങളെല്ലാം കുന്നുകൂടി കൊണ്ടിരിക്കുന്നു ഇപ്പം പാറ പൊട്ടിക്കുന്നതിലൂടെ

ഒത്തിരി ഭൂമിക്ക് ദോഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് ചുറ്റുമുള്ള നദികളെല്ലാം നെകന്നില്ലാതായിരിക്കുന്നു കാടുകളും മലകളുവെല്ലാം വെട്ടി നശിപ്പിക്ക്കാ കൃഷിയിടങ്ങളിൽന്നെല്ലാം മണ്ണ് ചോർന്ന് പോയിരിക്കുന്നു പരിസ്ഥിതിയിലെല്ലാം വളരെയേറെ മാറ്റങ്ങള് സംഭവിച്ചിണ്ടിരിക്കുന്നു മഴക്കാലങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു കാലാവസ്ഥയില് വലിയ വ്യതിയാനങ്ങള് വന്നുകൊണ്ടിരിക്കുന്നു കൃഷി ചെയ്ത കൃഷി ഭൂമികൾ ഇല്ലാതായിരിക്കുന്നു വലിയ മാറ്റങ്ങൾ സംഭവിച്ച് കൊണ്ടിരിക്കുന്നു അതി കഠിനമായ ചൂടുകൾ ചൂട് ചൂട് ഉണ്ടായി കൊണ്ടിരിക്കുന്നു പല രീതിയിലുള്ള കാലാവസ്ഥ മോശമായ കാലാവസ്ഥ ഞങ്ങളെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരുന്നു മാലിന്യങ്ങൾടെ വലിയൊരു കൂമ്പാരങ്ങള് ടൗൺ ഏരിയകൾലെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നു പരിസ്ഥിതിയിൽ വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചോണ്ടിരിക്കുന്നു ഇവയിലെല്ലാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു കൃഷിയിടങ്ങൾ കൃഷി ഭൂമികൾലെല്ലാം നാശനഷ്ടങ്ങൾ സംഭവിച്ചൊണ്ടിരിക്കുന്നു കൂടുതൽ പ്രതിരോധ ശക്തി ഇല്ലാതായിരിക്കുന്നു ഇതെല്ലാം നമ്മുടെ കൃഷിക്കും നമ്മുടെ കാലാവസ്ഥക്കും എല്ലാം മാറ്റങ്ങള് സംഭവിച്ചോണ്ടിരിക്കുന്നു